മലയാളത്തിലെ ഭാഷാഭേദങ്ങള് പഠിച്ചിട്ടുണ്ട് ഉപയോ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോം നമുക്കൊരുപാട് ലാംഗ്വേജ് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ മലയാളത്തീത്തന്നെ ഇപ്പോള് നമ്മുടെ ഈ ജില്ലകള് തമ്മില്തന്നെ ഇവടത്തെ ജില്ലയും മറ്റു ജില്ലകളൊക്കെ നോക്കുമ്പോള് ഭാഷാഭേദങ്ങളൊത്തിരിയുണ്ട് ജില്ലകള് മാത്രമല്ല ഒരു ജില്ലയിൽത്തന്നെ പല സ്ഥലങ്ങളിലും പല ഭാഷയാണ് പ്രാദേശിക ഭാഷ വരുമ്പോഴത്തേനും അതില് പല ഭാഷാഭേദങ്ങളും സംഭവിക്കാറുണ്ട് അതീത്തന്നെ ഇനി ഈ ജില്ലകള് വരുമ്പോഴത്തേനും നമ്മള് പറയുന്ന കാര്യങ്ങളിലും അതിലർത്ഥം ചില വാക്കുകള് വരുമ്പോഴത്തേനും അതില് മീനിംഗില് തന്നെ വ്യത്യാസം വരാറുണ്ട് നമ്മുടോരോ ജില്ലകള് വരുന്നയിത് ഇതു കണ്ടിട്ട് അപ്പോഴതൊക്കെ ഭാഷാഭേദങ്ങളാണ് പിന്നെ അതില് ഇത് പഠിക്കാൻ പഠിച്ചിട്ടുണ്ട് അത്പോലെത്തന്നെയിത് ചില സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കാനും സാധിച്ചിട്ടുണ്ട്